അ ടാക്സി ഡ്രൈവർ ആണോ ആ എനിക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടേ മൂന്നാർക്കാണ് അപ്പോൾ കാര്യങ്ങളൊക്കെങ്ങനെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ ഒള്ളത് മൈസൂരാണ്

എനിക്ക് ഒരു സെവൻ സീറ്റർ വേണം

എർട്ടിഗ എങ്ങനെയാണ് റേറ്റ് ഒക്കെ വരുന്നത് പെർ ഡേ അല്ലേ

നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് നിങ്ങൾ കോഴിക്കോടാണല്ലേ അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സുമാണ് പോവാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം ഞങ്ങൾ മൈസൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വരാം വന്ന് കഴിഞ്ഞിട്ട് എർട്ടിഗ നമുക്ക് ഫിക്സ് ചെയ്യാം എർട്ടിഗ സെവൻ സീറ്റർ ഏഴ് പേർ പോവില്ലേ ആ ഓക്കെ ഓക്കെ ഞാൻ മറ്റന്നാൾ എത്തുള്ളൂ ഒരു വെളുപ്പിനൊരു സിക്സ് ഓ ക്ലോക്ക് ഒക്കെ ആവും

ആ ആ ആ പ്ലാനിൽ എന്തായാലും ചേഞ്ച് ഉണ്ടാവും അത് ആ അത് നമുക്ക് ആവശ്യമുള്ളത് അങ്ങനെ യാത്രയുടെ ഇടയിൽ നമുക്ക് സംസാരിക്കാം ആ ആ റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ആ നിങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ആ ഓക്കെ